ഇതൊരു സ്ഥിര വരുമാനമല്ല കേരളത്തിലൊരു പത്തോ ഇരുപതോ ആളെ ഈ പശൂനേം കോഴികളേം വളർത്തുന്നുള്ളു അതു തന്നെ അതിനുള്ള വല്ല ഇത് വരുമാനം ഒന്നുമില്ല പാൽ വിറ്റിട്ടും മോര് തൈര് പേട ഇങ്ങനത്തെല്ലാം വിറ്റിട്ടാണ് പുണ്ണാക്ക് ഇതെല്ലാം വാങ്ങുന്നത് അല്ലാതെ അതൊരു കൃഷിൻ്റെ അതൊരു പൊ ഇതിൻറ്റൊരു മാറ്റവുമില്ല അതോണ്ട് പാലുല്പന്നങ്ങൾക്ക് വല്ല ഇതാകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് കോഴി വളർത്തൽ കോഴിയ്ക്കില്ല തീറ്റ മേടിയ്ക്കാനില്ലാ പൈസ ഇതുവെല്ലാ ഉണ്ട് ഇപ്പഴത്തെ അവര്ക്കൊന്ന് അതിനേപ്പറ്റിട്ടൊന്ന് അർ അറിയാതെ അറിയാൻ വയ്യാതെ അവസ്ഥയാണ് എങ്ങനെ പോറ്റണം എങ്ങനെ വളർത്തണോന്നൊന്നും ആരിക്കും അറിയില്ല അതുകൊണ്ടിപ്പോൾ എല്ലാവർക്കും അതേതായൊള്ള വിഷമങ്ങളും കാര്യങ്ങളല്ലാം ഉണ്ട് അതിപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നാക്കുവന്ന് പറയാന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ പോറ്റാനോ പിടിക്കാനൊന്നു മൃഗങ്ങളെ എങ്ങനെ കൊണ്ടടക്കണം പോറ്റണം എന്നൊന്നും ആർക്കും അറിയില്ല അത് കാരണം അതിനുള്ളൊരു ക്ലാസ്സ് എടുത്ത് കൊടുക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുക അല്ലാതെ ഇപ്പോൾ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരിതാണ് പുണ്ണാക്കിനും തീറ്റക്കുമെല്ലാം ഭയങ്കര പൈസയാണ് അതുകൊണ്ടിങ്ങനെ അതൊരു ഇത് സമ്പാദ്യം ഇതിലുണ്ടാവൂല്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ ചെയ്യാ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക അതുപോലാണ് ആളുകളോരോ വ്യവസായമായിട്ട് ഏർപ്പെട്ടിട്ടുള്ളത് മൃഗങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് കേരളത്തിൽ ഇരുപത് ശതമാനം ആൾക്കാർക്ക് അറിയുള്ളൂ അതു കൊണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിട്ട് എല്ലാരിലും ചെയ്യണ്ട രീതികൾ അറി അറിയിച്ചുകൊടുക്കുക അതിനുള്ള സംഭാവന നൽകുക അതാണ് വേണ്ടത് അല്ലാണ്ട് പാൽ വിറ്റിട്ട് തൈര് മോരും വിറ്റിട്ടൊന്നും മൃഗങ്ങളെ വളർത്താൻ ഉള്ള ഇതാക്കാനും കഴിയൂല്ല അത് ചെയ്യാൻ പറ്റാതൊരു കാര്യമാണ് അതോണ്ട് എല്ലാ പ്രോത്സാഹിപ്പിച്ചിട്ട് അതിനുള്ള ക്ലാസ്സെടുത്ത് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക